ഈ ഗോത്രങ്ങളിലുള്ളവര് നമ്മുടെ ഇപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ കുറവാണ് എന്നാൽ ഇപ്പോൾ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കില് ഗോത്രം പിന്നെ ജാതി മതം അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് എല്ലാവരും തൊഴിലുകളൊക്കെ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പം ഗോത്ര കലകള് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ വിഗ്രഹം ഉണ്ടാക്കുക ദൈവത്തിൻ്റെ വിഗ്രഹങ്ങള് ഉണ്ടാക്കുക രൂപങ്ങള് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്ക ഗോത്രവർഗ്ഗക്കാര് ചെയ്യുന്നുണ്ട് ഈ ഗോത്രത്തിലുള്ളവര് തന്നെ വിഗ്രഹങ്ങള് മാത്രമല്ല ഈ മനുഷ്യൻ്റെ രൂപങ്ങളാണെങ്കിലും മണ്ണ് കൊണ്ടുള്ള ഓരോ പാത്രങ്ങള് അങ്ങനെയുള്ള സംവിധാനങ്ങള് പിന്നെ ഓരോ ചിത്രങ്ങള് ഓരോ രൂപങ്ങള് അങ്ങനെയുള്ളതൊക്കെ ഈ പിന്നെ ഗോത്രത്തിലുള്ളവരാണ് കൂടുതല് ചെയ്യുന്നത് എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാര് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കൂടുതൽ ആളുകളും പിന്നെ ഈ ഗോത്രത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നത് എന്നിട്ട് ഞമ്മളത് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ നമ്മള് മേടിച്ച് വീട്ടില് വെച്ച് ഉപയോഗിക്കാറുണ്ട് പൂജയ്ക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മളാ വിഗ്രഹങ്ങള് ആശ്രയിക്കാറുമുണ്ട് അതൊക്കെ ചെയ്യുന്നത് ഈ ഗോത്ര കലകളിൽ ഉള്ളവരാണ് എന്നാണ്